ഒരു തൊഴിലെന്ന രീതിയിൽ അത് രസകരമാക്കുമോ എന്നെനിക്ക് തോന്നുന്നതല്ല ഏത് തൊഴിലും അത് രസകരമാക്കാൻ ആ രസകരമായി ഒരു അനുഭവമാക്കി മാറ്റുക എന്നുള്ളത് ആ തൊഴിൽ ആ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു കാര്യമാണ് എങ്കിൽ തന്നെയും മത്സ്യബന്ധനം ഒരു വിനോദ ഉപാധി തന്നെയായിരിക്കുന്ന ഒരു കാലഘട്ടം അതായത് തൊഴിൽ തന്നെ മത്സ്യബന്ധനമായി മാറുന്നത് വളരെ വളരെ അർത്ഥവത്തായ ഒരു കാര്യം തന്നെയാണ് മത്സ്യബന്ധനത്തിൽ രണ്ട് തരം മത്സ്യബന്ധനങ്ങളാണ് പ്രധാനമായും എൻ്റെ അറിവിലുള്ളത് ഒന്ന് ഉൾനാടൻ മത്സ്യ മത്സ്യബന്ധനം രണ്ട് കടലുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനം കടലിൻ്റെ മത്സ്യബന്ധനമെന്ന് പറയുമ്പോൾ തിരയുമായി തീരവുമായി യാതൊരു ബന്ധങ്ങളുമില്ലാതെ മാസങ്ങളോളമോ ആഴ്ചകളോളാമോ ആയിട്ട് ദൂരെ കടലിൽ പോയി ആഴത്തിൽ മത്സ്യബന്ധനം നടത്തുകയും ഒരു കൂട്ടമാളുകളോ അല്ലെങ്കിൽ ഒരു സമൂഹമോ അറിയപ്പെടാത്ത കുറേ മറ്റു പല ബൂത്തുകളോ അങ്ങനത്തെ സാഹചര്യങ്ങളാവട്ടെ മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരുമ്പോൾ തന്നെ അവരുടെ ആശയങ്ങളും നമുക്കുമായി ചേരുന്ന ആളുകളുമായുള്ള സംവാദങ്ങളും ഒക്കെ ഈ ഒരു സമയത്ത് സാധ്യമാണ് അത് പൂർണ്ണമായ അല്ലെങ്കിൽ ഒരു അത് അതിൻ്റെ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുകയോ ഒക്കെ ചെയ്യും എന്ന് പറയാൻ അത് നമുക്ക് ഒരു വിനോദകരമായ കാര്യം തന്നെയാണ് എന്ന് എനിക്ക് പറയാനുള്ളത് വിനോദമെന്ന അർത്ഥത്തിൽ മറ്റുള്ള നമ്മൾ ഇടപ്പടുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇടപെടലുകളിൽ നമുക്ക് ഒരു സംതൃപ്തി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ കാണുന്നത് കൂടുതലായും എനിക്ക് മറ്റും മുമ്പ് പറഞ്ഞത് പോലെ തന്നെ മത്സ്യബന്ധനം ഒരു വിനോദ ഉപാധി ആയിരിക്കെ തന്നെ അത് ഒരു തൊഴിലായി സ്വീകരിക്കുക എന്നുള്ളത് വളരെ മനോഹരമായ ഒരു കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്